എടാ അപ്പോൾ എനിക്ക് ആ സഫയർ റെസ്റ്റൊറൻറ്റിൽനിന്ന് ഒന്ന് ഫുഡ്ഡ് ഓഡറ് ചെയ്യണം എന്നൊരു താൽപര്യം ഉണ്ടായി നീയവിടെനിന്ന് സ്ഥിരം കഴിക്കാറുള്ളതല്ലേ അപ്പോൾ നിനക്കവിടുത്തെ റേറ്റിങ്ങിനെ പറ്റിയൊക്കെയൊന്ന് പറയാമോ പിന്നെ അവിടുത്തെ ഫുഡ്ഡ് എങ്ങനെയാണ് ഭക്ഷണം കൊള്ളാമോ നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടോ പിന്നെ അവിടുത്തെ വില എങ്ങനെയാണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണോ അതോ കുറഞ്ഞ കാശിൽത്തന്നെ അത്യാവശ്യം നല്ല ഫുഡ്ഡ് കിട്ടാറുണ്ടോ പിന്നെ അവിടുത്തെ ക്ലീനാണോ സലങ്ങൾ അവരുടെ കിച്ചണും അവരുടെ പരിസരവും എല്ലാം വൃത്തിയുള്ളതാണല്ലോ അല്ലേ